ഞാൻ കഴിഞ്ഞ ദിവസം സ്വിഗ്ഗീന്ന് ഇങ്ങനെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തപ്പം ഡെലിവറി ബോയ് കൊണ്ടത്തെരാൻ ഒരുപാട് താമസിച്ചു ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോണും എടുത്തില്ല ഫോൺ എടുത്ത് കുറെ തവണ ട്രൈ ചെയ്തപ്പോൾ ഫോൺ എടുത്തിട്ട് അത്ര നല്ലതായിട്ടല്ല സംസാരിച്ചത് അതിന് പ്രത്യേക കാരണങ്ങൾ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ സാധനം ഡെലിവറി ചെയ്യൂന്നുള്ള പരസ്യം ഒക്കെ കണ്ടിട്ടാണ് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് സൊമാറ്റോ ഒക്കെ പോലുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാനുള്ള എല്ലാ വഴിയും ഉണ്ട് പക്ഷേ നിങ്ങൾ ഫ്രീ ഡെലിവറി പെട്ടെന്ന് ഡെലിവറ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം കണ്ടിട്ടാണ് ഇങ്ങനെ അഷുറൻസ് തന്നോണ്ടാണ് ഈ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തേ പക്ഷേ അതിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല നിങ്ങളുടെ ഡെലിവറി ബോയ്സാണേ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണവും പറയുന്നില്ല വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് വിളിച്ചിട്ട് ഫോണേലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നീക്കാൻ പറ്റും ആ സ്വിഗ്ഗീലെ നിങ്ങളുടെ വണ്ടി ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നൂന്നൊക്കെയാണ് പറയുന്നത് അത് ഞാൻ അഞ്ചാറ് പ്രാവശ്യം വിളിച്ചത് പിന്നെ ആണ് അതും തിരിച്ച് വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചേ പിന്നെ ആണ് നിങ്ങൾ ഇങ്ങനെ ഒക്കെ പറയുന്നത് അതുകൊണ്ട് ഡെലിവറി ബോയ്സിൻ്റെ പെരുമാറ്റം അത്ര നല്ലതല്ല